സാരിയാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല സാരിയായിരുന്നു കളർ നല്ല കളറുമായിരുന്നു ഞാൻ നനച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു നനച്ചപ്പോൾ യാതൊരു ചെയ്ഞ്ചോ ഒന്നുമേ ഉണ്ടായിരുന്നില്ല ഉടുക്കാൻ നല്ല സുഖവും ആണ് ആ സാരി വിലയും നല്ല ചീപ്പായിരുന്നു